ഞാൻ ഇതുവരെ നടത്തിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൈക്ക് എന്നു വെച്ചാൽ ഊട്ടി കൊടൈക്കനാലിലോട്ടു പോയൊരു ഹൈക്കായിരുന്നു കൊടൈക്കനാലിനെ പറ്റി പറയാൻ വാക്കുകളില്ല അടിപൊളി എന്നു വെച്ചാൽ അടിപൊളി മഞ്ഞ് നമ്മൾ നിന്നു വിറയ്ക്കും അത്രയും നല്ല സൂപ്പർ മഞ്ഞാണ് അതു കൊണ്ടെനിക്കങ്ങോട്ടുള്ള ട്രിപ്പ് ഭയങ്കര ഭയങ്കര ഇഷ്ടമെന്നു വെച്ചാൽ നല്ല ഭയങ്കര നല്ലൊരു പ്ളെഷർ തന്നൊരു ട്രിപ്പായിരുന്നു അതു നമ്മൾ കൊടൈക്കനാലിൽ എന്താ നല്ല മഞ്ഞത്തു കൂടി ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് മരങ്ങൾക്കിടയിൽക്കൂടിയൊക്കെ നടന്നു വന്ന് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത് നമ്മൾ നമ്മുടെ ഗുണാ കേവ് ആ നമ്മളവിടെ ആ കുറച്ചു ഭാഗങ്ങൾ ആ എൻട്രി എൻട്രിയിലെ അങ്ങോട്ടല്ല അതിനവിടെയൊക്കെ നമ്മൾ ചുറ്റിക്കണ്ട് നല്ല അടിപൊളിയായിട്ടു പോയി പിന്നെയെന്നു വെച്ചാൽ ഊട്ടിയിൽ ഊട്ടിയിലെ ലെയ്ക്കിൽ നമ്മൾ ബോട്ടിങ്ങിനു പോയി ബോട്ടിങ്ങിനു പോയെന്നു വെച്ചാൽ നല്ല നല്ല ഒരു കാറ്റും നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു ഫീലായിരുന്നു പിന്നെ നമ്മൾ ഒരഞ്ചു മണി അഞ്ചരയൊക്കെ ആയപ്പം സൈക്ലിങ്ങ് ആയിരുന്നു ടൗണിൽ കൂടി നമുക്ക് സൈക്ലിങ്ങ് ഉണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇരുട്ടു അല്ല എന്നാൽ വെളിച്ചവും ഇല്ല നല്ലൊരു നല്ല സൂര്യൻ അസ്തമിക്കാൻ പോയി ആ ഒരു സെറ്റ് അപ്പിലിങ്ങനെ നമുക്കിങ്ങനെ ലെയ്ക്കിൻ്റെ അതൊക്കെ നല്ലൊരു ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ആ ടൗണിൽ കൂടി അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ സൈക്കിളൊക്കെ ചവിട്ടാൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു